തീർച്ചയായും പിന്തുണയ്ക്കുന്നുണ്ട് കാരണം ഇത് ഞാൻ നേരത്തെപറഞ്ഞതു പോലെ ഇതിൽ ഞാൻ ഒരു രീതിയിലും എൻ്റെ പ്രൊഫെഷണലെ എൻ്റെ ഒരു ജോലിയായി ഞാനിത് കാണാത്തതുകൊണ്ട് തന്നെ ഇത് ഹോബി ആയതു കൊണ്ടു തന്നെ വീട്ടുകാർ ഒരു കുഴപ്പമോ ഇല്ല ചെയ്തോ ശരിയാകും അല്ലേ ഒരു കുഴപ്പമോ ഇല്ല സപ്പോർട്ടാണ് ഇതിപ്പോൾ എൻ്റെ ഫാമിലി വീട്ടുകാർ അപ്പനമ്മ മാത്രമല്ല ഇപ്പോൾ എൻ്റെ ചേട്ടനാണേലും എൻ്റെ കസിൻസാണേലും അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കുന്ന ആളാണ് എന്നറിഞ്ഞതു കൊണ്ടുതന്നെ അവരെനിക്കൊരു പുതിയ ഫോൺ മേടിച്ചു തന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ അതിൽ ഫോട്ടോ എടുക്കുന്നു അപ്പോൾ അവർക്ക് ഞാനിതൊരു പ്രൊഫഷനാക്കുന്നില്ല എന്നവർക്കുറപ്പുള്ളതു കൊണ്ടു തന്നെ അവരെനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്നുണ്ട് കാരണം ഇപ്പോൾ ഈ ഒരു മേഖലയിൽ ജോലി ജോലി സാദ്ധ്യതയുണ്ട് എങ്കിൽ പോലും അതൊരു വലിയ ജോലി സാദ്ധ്യതയല്ല ഇപ്പോൾ നമുക്കതൊരിക്കലും ഒരു പ്രൊഫഷനാക്കി കഴിഞ്ഞാൽ ജീവിതം രക്ഷപ്പെടണം എന്നൊരു നിർബന്ധവും ഇല്ല അതു മാത്രവുമല്ല എൻ്റെ ഹോബികളെന്നും എൻ്റെ ഹോബികളായിരിക്കണം ഒരിക്കലും അതെൻ്റെ ജോലി ആവരുതല്ല അതെന്നെ ഭരിക്കാൻ വരരുത് അങ്ങനെയാണെൻ്റെ ഒരു പോളിസി അതൊരിക്കലും ഞാൻ ജോലി ആക്കാത്തിടത്തോളം അവർക്കതൊരു ഹോബിയായി ഇരിക്കുന്നിടത്തോളം കാലം അവർക്ക് ഒരു കുഴപ്പമോ ഇല്ല എനിക്ക് ഒരു കുഴപ്പമോ ഇല്ല ഞാൻ അപ്പോൾ ഇതെൻ്റെ ജോലിയായി കഴിഞ്ഞ ഒരു പോയിൻറ്റ് ഓഫ് ടൈം എത്തുമ്പോൾ ഞാനിതിനെ വെറുക്കാൻ തുടങ്ങും അല്ലെ ഇതിൻ്റെ ജോലി സ്ട്രെസ്സ് കാരണം എൻ്റെ ഹോബിയെ ഞാൻ ജോലിയാക്കി ആ ജോലി സ്ട്രെസ്സ് കാരണം ഞാൻ എൻ്റെ ഹോബിയെതന്നെ വെറുക്കാൻ താ തുടങ്ങും എനിക്കതിനു താത്പര്യം ഇല്ല എനിക്കെൻ്റെ ഹോബി എന്ന് എൻ്റെ ഹോബിയായി ഒരിക്കലും സ്ട്രെസ്സില്ലാത്ത രീതിയിൽ സ്ട്രെസ്സെന്നു പറയുന്ന സാധനം ഇല്ലാത്ത രീതിയിൽ എനിക്കി സാധനം ചെയ്യണം അപ്പം ഞാൻ ഇപ്പോൾ അതാണ് ചെയ്തു കൊണ്ടിരിക്കുന്നത് എനിക്കിപ്പോൾ ഒരു സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ എനിക്കിതിഷ്ടത്തോടു കൂടി തന്നെയാണ് ഞാൻ എല്ലാ ഫോട്ടോയും എടുക്കുന്നത് അപ്പോൾ ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും ഫോട്ടോ എടുക്കുക ഇനി അതിലൊരു മാറ്റമുണ്ടാകുകയൊന്നും ഇല്ല ഇത് അത്ര അത്ര കാലത്തോളം തന്നെ മാതാപിതാക്കളും എൻ്റെ എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാരും അവർക്ക് ഒരു കുഴപ്പമില്ല അവരും എന്നെ സപ്പോർട്ട് ചെയ്തു തന്നെ നിൽക്കും ഇനി അങ്ങനെ തന്നെ ഉണ്ടാകുകയുള്ളു